എടാ ഞാൻ ആണെങ്കിൽ ഡിവോർസ് ആയി പിന്നെ ഞാൻ കഴിഞ്ഞ ഡിപ്രഷനിലൊക്കെയാണ് പിന്നെ ഞാന് എന്റെ പേര് മാറ്റി കേട്ടോ പേര് മാറ്റിയപ്പോഴത്തേക്ക് ഇനി പേര് എന്റെ ആ പേര് പാസ്പോര്ട്ടിലും മാറ്റേണ്ടേ അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ അതിന് കുറച്ച് പ്രാ കാര്യങ്ങള് ചെയ്യണം അപ്പം ആ ആ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിനക്ക് വല്ലതും അറിയാമോ അതുപോലെ തന്നെ അതിൽ കുറേ എന്തോ ഫോം ഒക്കെ ആവശ്യമുണ്ട് അപ്പം എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിനക്ക് അറിയാമെങ്കില് ഒന്ന് പറഞ്ഞ് തരുമോ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം എനിക്കത് ചെയ്യണം അപ്പോഴെത്തേക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ടത് ഇനി നമുക്ക് ചിലപ്പം മറ്റേ റേഷന് കാര്ഡിന്റെ കോപ്പി ഫോട്ടോ പിന്നെ ആധാറിന്റെ കോപ്പി ഫോണ് നമ്പർ അതൊക്കെ ആവശ്യം വരുമായിരിക്കുമോ പിന്നെ അപ്ഡേറ്റ് എവിടെയാണ് പോവേണ്ടത് അത് വല്ലതും അറിയാമോ അതുപോലെ തന്നെ പിന്നെ കുറച്ച് കാര്യങ്ങള് ചെയ്യാനില്ലേ